ഏറ്റവും വലിയ ശക്തിയും അതുപോലെ ഏറ്റവും വലിയ ബലഹീനതയും നമുക്ക് നമ്മൾ തന്നെയാ നമുക്ക് നമ്മളിൽ ഉള്ള വിശ്വാസം അതൊരു ശക്തി ബലഹീനത നമുക്ക് നമ്മളിൽ ഇല്ലാത്ത വിശ്വാസം നമുക്ക് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റില്ല ഐ ക്യാൻ ഡൂ പിന്നെ ഡൂ ഇറ്റ് അല്ലെങ്കിൽ എനിക്ക് ചെയ്യാൻ പറ്റില്ല അങ്ങനെ ഉള്ള ഒരു ചിന്താഗതി നമ്മൾ നമ്മളെ വിശ്വസിക്കുക നമ്മൾ ആദ്യം നമ്മളെ സ്നേഹിക്കുക എന്നെ സ്നേഹിക്കുക ഞാൻ എന്നെ സ്നേഹിക്കാത്ത ഒരാളെ വേറെ ആരെയും സ്നേഹിക്കാൻ പറ്റില്ല ആദ്യം സ്വന്തം സെല്ഫ് നമ്മുടെ ജീവിതം നമ്മളെ നമ്മളെ സ്നേഹിക്കാൻ തുടങ്ങുക നമ്മളിലെ ശരിയും തെറ്റും നല്ലതും ചീത്തതും സൗന്ദര്യത്തെയും എല്ലാം നമ്മള് സ്നേഹിക്കുക നമ്മടെ കഴിവിനെ ഒക്കെ സ്നേഹിക്കുക നമ്മുടെ ശക്തി നമ്മൾ തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് എൻ്റെ ശക്തി ഞാൻ തന്നെയാ ഞാൻ ഡൗൺ ആയ എനിക്ക് പറ്റില്ല ചെ നിനക്ക് ചെയ്യാൻ പറ്റോ ഇല്ല എനിക്ക് ചെയ്യാൻ പറ്റില്ല നമ്മൾ അത് ചെയ്ത് നോക്കിയാൽ അല്ലെ അത് ചെയ്യാൻ പറ്റോ ഇല്ലയോ എന്ന് മനസിലാക്കുക അപ്പോൾ എൻ്റെ എൻ്റെ തോട്ട് ആ കേട്ടോ എനിക്ക് വേറെ ആരും നമ്മൾ ഇങ്ങനെ പറയും എനിക്ക് എൻ്റെ ഫ്രണ്ടാണ് എനിക്ക് എൻ്റെ അമ്മയാണ് എനിക്ക് എൻ്റെ അവരാണ് ഇവരാണ് അതൊന്നുമല്ല നമുക്ക് ഇവര് ആരുമാണോ നമുക്ക് ചെയ്ത് തരുന്നത് അല്ല നമ്മുടെ ലൈഫാണ് നമ്മളാണ് ചിന്ത നമ്മളെ തീരുമാനമാണ് നമ്മളാണ് ലൈഫിൽ മുന്നോട്ട് പോണ്ടത് അപ്പോൾ നമ്മുടെ പിന്നെ നമ്മുടെ ബലവും ബലഹീനതയും ഒക്കെ നമ്മൾ തന്നെയാണ്